ഇന്ന് പ്രധാനമായിട്ടും ഇന്ത്യയിൽ അഭിമു അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും സാമ്പത്തിക വ്യവസ്ഥയാണ് കൂടുതലായിട്ടും അഭിമുഖീകരിക്കുന്നത് കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആളുകളുടെ അടുത്തൊന്നും പൈസയും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോദി ഒരു നവംബറിൽ ആണ് ആയിരത്തിൻറ്റെയും അഞ്ഞൂറിൻറ്റെയും നോട്ട് പെട്ടെന്ന് നിരോധിച്ചത് അപ്പം തന്നെ ഏകദേശം സമ്പത്ത് വ്യവസ്ഥയൊക്കെ ഇടിഞ്ഞ് തകർന്നു തുടങ്ങി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഒന്നും ആരുടെ അടുത്തും പൈസ ഇല്ലാത്ത ഒരവസ്ഥ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉള്ളതാണെങ്കിൽ പഴയ അഞ്ഞൂറും പഴയ ആയിരത്തിൻറ്റെയും നോട്ട് അതെന്താണ് ചെയ്യേണ്ടത് എന്താ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു പിന്നെ നമ്മൾ എന്തെങ്കിലും സാധനം കൊടുത്തുകഴിഞ്ഞാൽ പൈസ ഇപ്പോൾ പഴയ നോട്ട് ഉണ്ടാവുള്ളൂ അത് നമുക്ക് മേടിക്കാൻ ഒട്ടും പറ്റൂമില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ സമ്പത്ത് വ്യവസ്ഥയാണ് കൂടുതലായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ രണ്ടായിരം ഉണ്ടാക്കി രണ്ടായിരം എന്ന പറഞ്ഞുകഴിഞ്ഞ നോട്ട് പിൻവലിച്ചു അങ്ങനെ അത് ഒരു പ്രശ്നമായി പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടെങ്കിലും പക്ഷേ ആരുടെ അടുത്തും അങ്ങനെ പൈസയോ കാര്യങ്ങളോന്നുമില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ അഞ്ഞൂറ് മാത്രമാണ് എടുക്കുന്നുള്ളൂ അത് സർക്കാർ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുവാണെങ്കിൽ ഇതൊക്കെ പോയിക്കോളും